തയ്യലിൻ്റെ സമയത്ത് എനിക്ക് വളരെ ടെൻഷനിലായിരുന്നു കാര്യം സംഭവിച്ചു ഒരു പാ ഒരു പാർട്ടി എൻ്റെ കയ്യിൽ ഒരു കല്യാണത്തിനു വേണ്ടി ബ്ലൗസ് തയ്ക്കാനായിട്ട് കൊണ്ടു തന്നു അപ്പോൾ ച ചതുരക്കഴുത്ത് വെക്കാനാണ് അന്ന് പറഞ്ഞത് പക്ഷേ എനിക്കത് വട്ടക അങ്ങനെ ചിന്തിച്ചില്ല ഞാൻ വട്ട ഞാൻ സാധാരണ ബ്ലൗസിനൊക്കെ വട്ടക്കഴുത്താണല്ലോ വെക്കുന്നത് അപ്പം ഞാനത് വട്ടക്കഴുത്ത് വെച്ചു തയ്ച്ച് എന്നിട്ട് കൊടുത്തു വിട്ടു അന്നു രാവിലെ കല്യാണത്തിൻ്റെ സമയത്ത് രാവിലെ അവർ കൊണ്ടു തന്നിട്ട് പറഞ്ഞ് നിങ്ങളെന്തു പണിയാണ് കാണിച്ചത് ഞാൻ ചതുരക്കഴുത്ത് വെക്കാനല്ലേ പറഞ്ഞത് പെട്ടെന്നത് അത് ആ ഓ പോ കല്യാണത്തിനു പോകണ്ടേ അതിനു മുൻപ് തയ്ച്ചു തരണം മാറ്റി തയ്ച്ചു തരാൻ പറഞ്ഞ് കൊണ്ടത്തന്നു ആകപ്പാടെ ടെൻഷനായി അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ഇത് ആ വട്ടക്കഴുത്ത് മാ പെട്ടെന്ന് തയ്ച്ച് അത് ചതുരക്കഴുത്താക്കി തയ്ച്ചു കൊടുത്തു അതു വളരെ ഒരു ടെൻഷനുള്ള കാര്യമായിരുന്നു ഇപ്പം അതിൽ നിന്ന് ഞാനൊരു കാര്യം പഠിച്ചത് എന്ത് എന്ത് വന്നാലൊക്കെ തയ്ച്ചു വന്ന് വന്ന് കസ്റ്റമേഴ്സ് വന്നു പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് കേട്ടിട്ടേ ഉള്ളു തയ്ക്കാവുള്ളു അല്ലെങ്കിൽ മറന്നു പോകാതെ എല്ലാം എഴുതി വെക്കണമെന്ന് പിന്നെ